മലയാളഭാഷ പ്രത്യേകിച്ച് വികാസത്തിന് സഹായിച്ചിട്ടുണ്ട് എന്ന് കരുതുന്നില്ല കാരണം ഇന്ന് കുട്ടികൾ പോലും ആംഗലേയ ഭാഷയിലാണ് സംസാരിക്കുന്ന് മലയാളഭാഷയുടെ സ്വാധീനംകൊണ്ട് രൂപപ്പെട്ട ഭാഷകൾ ഇവിടെ ഉണ്ടായിട്ടുള്ളതായിട്ട് അറിവില്ല പലരും മലയാളഭാഷ സംസ്കൃതിയിൽനിന്നും തമിഴിൽനിന്നുമൊക്കെ എടുത്തിട്ടുള്ളതായിട്ട് കേട്ടിട്ടുണ്ട് എന്നാൽ മലയാളഭാഷ ഈ പ്രദേശത്തെ മറ്റ് ഭാഷകളുടെ വികാസത്തെ സ്വാധീനിച്ചു എന്ന് പറയുവാൻ സാധിക്കത്തില്ല അതുകൊണ്ട്തന്നെ ഈ ഭാഷയുടെ പരിമിതികളും ഏറെയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് മലയാളഭാഷ അതിൽത്തന്നെ ഒതുങ്ങിനിൽക്കുന്നു മറ്റ് ഭാഷകളെയൊന്നും സ്വാധീനിക്കുന്നില്ല എന്നുള്ള ഒരു വ്യാഖ്യാനം പല മലയാളഭാഷാ പണ്ഡിതരിൽനിന്നും തന്നെ നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്ന കാര്യമാണ് നല്ല ഈ ഗ്രാമപ്രദേശം ആണെങ്കിൽപ്പോലും മലയാളഭാഷയുടെ ചെറിയ സാമ്യങ്ങൾ ഉള്ള ഭാഷകൾ സംസാരിക്കുന്നു എന്നുള്ളതല്ലാതെ അത് മറ്റ് ഏതെങ്കിലും ഭാഷയേയോ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിൻ്റെ വികാസത്തേയോ കാര്യമായിട്ട് ബാധിച്ചതായിട്ട് നമുക്ക് പറയുവാൻ സാധിക്കത്തില്ല